യുവാക്കളും മുതിര്ന്നവരും ഉള്പ്പെടെ ഒരുപാട് ആള്ക്കാര് കടന്നു വരുന്ന ഒരു മേഖലയാണ് ട്രക്കിംഗ് ഒരുപാട് ആള്ക്കാര് അതിലേക്ക് കടന്നു വരാന് ഇഷ്ടപ്പെടുന്നും ഉണ്ട് പലപല സാഹചര്യങ്ങൾ മൂലം അതിലേക്ക് കടന്നു വരാന് സാധിക്കാത്ത ഒരുപാട് യുവജനങ്ങളും ഒരുപാട് ആള്ക്കാരും ഇന്നത്തെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടുതന്നെ ട്രക്കിംഗ് ഇപ്പോൾ ഒരുപാട് ആള്ക്കാര് ആഗ്രഹിച്ച് കടന്ന് ചെന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ട്രക്കിംഗ് സ്ഥലങ്ങളില് ഇപ്പോള് മുമ്പത്തേതിനെക്കാള് കൂടുതല് മാലിന്യങ്ങള് കൂടി വരുന്നതായി നമ്മള് കാണുന്നു കാരണം അവര് കൊണ്ടുവരുന്ന സാധനങ്ങള് അവിടെത്തന്നെ വലിച്ചെറിയുന്നു അവർ യൂസ് ചെയ്യുന്ന നാപ്കിന്സ് പാഡ് ഐറ്റംസ് ആ അതുപോലെതന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടില്സ് എല്ലാം നമുക്ക് ട്രക്കിംഗ് സ്പോട്ടുകളില് നിന്ന് ഇപ്പം നമുക്ക് കണ്ടുകിട്ടുന്നുണ്ട് ഫുഡ് വേസ്റ്റുകൾ ഇത് ഇവിടെ വളരെ വൃത്തി ഹീനമായിട്ടാണ് ഇപ്പം ട്രക്കിംഗ് സ്പോട്ടുകള് നമുക്ക് കാണാന് സാധിക്കുന്നത് ട്രക്കിംഗിനിടെ ഈ സ്ഥലങ്ങളൊക്കെ പരിസരങ്ങള് വൃത്തിയായി സൂക്ഷിക്കാന് നമുക്ക് വളരെയധികം ഈസിയാണ് കാരണം നമ്മള് ഉപയോഗിക്കുന്ന സാധനങ്ങൾ റീസൈക്കിള് ചെയ്ത് യൂസ് ചെയ്യാന് പറ്റിയ സാധനങ്ങൾ നമ്മള് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് കഴുകിയെടുത്ത് യൂസ് ചെയ്യാന് പറ്റുന്ന ഒരുപാട് പ്രോഡക്ട്സുകൾ നമുക്കിപ്പോള് മാര്ക്കറ്റില് സുലഭമാണ് അവ മേടിച്ച് നമ്മള് ഉപയോഗിക്കുകയാണെങ്കില് അത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കഴുകി യുസ് ചെയ്യാൻ പറ്റും ഫുഡ് കഴിക്കാന് എടുക്കുന്ന പാത്രം അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനെടുക്കുന്ന പാത്രങ്ങൾ അവയെല്ലാം നമ്മൾ ജസ്റ്റ് നമ്മള് കഴുകി നമുക്ക് യൂസ് ചെയ്യാന് പറ്റുന്ന പാത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് പാത്രങ്ങള് യൂസ് ചെയ്യാണ്ട് നമ്മള് സ്റ്റീല് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകി എടുത്തു വയ്ക്കാന് വേണ്ടി പാത്രങ്ങള് യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം ഫുഡ് വേസ്റ്റുകളൊക്കെ നമ്മൾക്ക് ഫുഡ് കൊണ്ടുവരുന്ന കവറുകൾ അങ്ങനത്തെ കവറുകളൊക്കെ നമ്മൾ തിരിച്ച് നമ്മളുതന്നെ സ്റ്റോർ ചെയ്ത് നമ്മളുതന്നെ കൊണ്ടുപോവുക